മലയാള ഭാഷയിലെ ചില ശൂസ് സവിശേഷതകളാണ് വ്യാകരണവും ഉച്ഛാരണവും നമ്മളത് പല ഇടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ പല കുട്ടികൾക്കും അതൊന്നും അറിയില്ല വ്യാകരണം ഉച്ഛാരണം എന്താണെന്ന് അറിയില്ല അത് അവരുടെ മാതാപിതാക്കൾ ഒന്നും പറഞ്ഞു കൊടുക്കില്ല കാരണം അവർക്ക് അവരുടെ മക്കൾക്ക് മലയാള ഭാഷ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇംഗ്ലീഷ് പഠിപ്പിക്കണം പഠിപ്പിക്കാനാണ് അവർക്ക് താൽപര്യം അതുപോലെ ഉച്ഛാരണം നന്നായി മലയാളം ഉച്ഛരിക്കാൻ അറിഞ്ഞിരിക്കണം ന നല്ല വണ്ണം മലയാള ഭാഷ ഉച്ചരിക്കാൻ പഠിക്കണം വായിക്കുന്നതിനോടൊപ്പം അത് നന്നായി ഉച്ഛരിക്കാൻ കൂടി പഠിക്കണം ഉച്ഛാരണം ശരി അല്ലെങ്കിൽ വായിക്കുന്നത് എല്ലാം എല്ലാം തെറ്റായി മാറും നാലാളുടെ കൂട്ടത്തിൽ നിന്ന് മലയാളം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയെ എന്താണെന്ന് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മലയാളം നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് മലയാള ഭാഷയാണെന്ന് പ പറഞ്ഞ് മലയാള ഭാഷയാണെന്നു മനസ്സിലാക്കാൻ കഴിയുകയുള്ളു